ഇന്ന് നമ്മുടെ മലയാളഭാഷയിൽ പഴയ രീതിയിൽ നിന്നും ഒരുപാട് ചുരുങ്ങിപ്പോയി ഒത്തിരി മാ സംസാരിക്കുന്ന രീതിയിൽ ഒത്തിരി ശൈലിയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാക്കുകളിൽ പോലും ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ട് പലന പല ഇടത്തും പല രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ പല മനുഷ്യരും ഇന്ന് പിന്നെ സംസാരം വളരെ കുറച്ചാണ് വളരെ പിന്നെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ കോഡ് ഈ ചുരുക്ക ഭാഷയിലൊക്കെ പറഞ്ഞ് കൊടുത്തു ആശയങ്ങൾ വളരെ കുറവാണ് ആശയ ആ വാ സംഭാഷണങ്ങൾ ഇന്ന് കുറവാണ് ആളുകളിൽ അത് ഒത്തിരി ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട്